കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നത് പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ തൊട്ട് നമ്മൾ മലയാളം പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അമ്മ അച്ഛൻ അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത് തന്നെ ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ തന്നെ അതാണ് പഠിക്കുന്നത് ഇവരൊന്നും എന്താണ് പറയുക എഴുതിയോ അങ്ങനെ നമ്മൾ എന്താണ് പറയുക ഒരു ഇതായിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ വായിൽ നിന്ന് വീഴുന്നത് അവർ അത് കേട്ട് പഠിക്കുന്നതാണ് അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാതൃഭാഷയാണ് അപ്പോൾ അതെന്തായാലും ആ കുട്ടികളും എന്തായാലും പഠിച്ചിരിക്കണം നമ്മളിപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ തന്നെയായിരിക്കും അവരും ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ച് ഇപ്പോൾ ഒരു നമ്മൾ ആ കുട്ടി നമ്മളിപ്പോൾ ജനിച്ചുവീഴുന്നൊരു കുട്ടിയെ വേറൊരു ആളുടെ അടുത്ത് അതായത് ഒരു ഹി ഇംഗ്ലീഷ് അറിയുന്ന ഒരാളുടെ അടുത്ത് കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ അവർ ആ ഭാഷയാണ് പഠിക്കുക നമ്മൾ മലയാളികളാവുമ്പോൾ നമ്മുടെ ഭാഷ എന്തായാലും നമ്മുടെ കുട്ടികളും പഠിക്കണം നമ്മളെ ലാഗ്വേജ് തന്നെ അവർ ഉപയോഗിക്കണം എന്നുള്ളതുകൊണ്ട് എന്തായാലും കുട്ടികൾ മലയാളം പഠിച്ചേ തീരുള്ളൂ അപ്പം എന്തായാലും മലയാളം പഠിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം